ഒരു മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം നിത്യേന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള പ്രാധാന്യമുള്ള ഒന്നാണ് വെള്ളം എന്നു പറയുന്നത് വെള്ളം ഇല്ലാണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുക പോലും ഇല്ല വെള്ളം കിട്ടാണ്ട് മരിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ വെള്ളം കൊണ്ട് നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ട് ഒരു ദിവസം വെള്ളം ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം പോയതുപോലെയാണ് കാരണം ഒരു ടാങ്കിലെ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തിനു പറയുന്നു ഒരു കറി വയ്ക്കാനും ചോറു വയ്ക്കാനോ പോലും പറ്റാത്ത അവസ്ഥയാണ് വെള്ളം ഇല്ലെങ്കിൽ അതുപോലെ തന്നെ വെള്ളം അധികമായി നമുക്ക് വേണ്ടത് പാത്രം കഴുകാനും തുടയ്ക്കാനും അലക്കാനും പിന്നെ ചോറു വയ്ക്കാൻ കഞ്ഞി വയ്ക്കാൻ ഒക്കെ വെള്ളത്തിന്റെ ആവശ്യം കുറെയുണ്ട് പിന്നെ വൃത്തിയായി നമ്മളെ നമ്മൾക്ക് ശുചിയായിട്ട് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും കുളിക്കുന്നത് അപ്പം കുളിക്കാനായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ആ വെള്ളം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുതന്നെ നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ ആയിട്ടുള്ള ഒരു സാധനം വെള്ളം തന്നെയാണ്